കഴിഞ്ഞ ഒരു വർഷത്തിനിടയില് ഉണ്ടായിട്ടുള്ള അവിസ്മരണീയമായ കാര്യമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാനിങ്ങനെയൊരു പ്രാക്ടീസിന് പോകുന്ന സമയത്ത് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മളിങ്ങനെ ബസ്സിറങ്ങി ബസ്സിറങ്ങി നമ്മള് ക്രോസ് ചെയ്യാന് വേണ്ടി നില്ക്കുകയാണ് അപ്പോള് ബസ് പോകുന്നതിന് മുമ്പ് നമ്മള് ക്രോസ് ചെയ്യാന് വേണ്ടി നില്ക്കുകയാണ് അപ്പോള് നോക്കുമ്പോള് ക്രോസ് ചെയ്യുമ്പോള് എന്താണ് പറയുക ഒരു വണ്ടി വന്ന് ഒറ്റയിടി അപ്പോള് അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കുന്നില്ല ആ ഇടിയില് തല പോയി വണ്ടിക്കടിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടിയൊക്കെ വന്നു അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മളൊരു ഇത് പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ് ഒരു സ്ഥലത്ത് അപ്പോള് അവിടെ നിന്നിങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ വണ്ടി വന്നിടിക്കുമെന്ന് നമ്മള് പ്രതീക്ഷിക്കുന്നില്ല അതൊരു ഒരു അവിസ്മരണീയമായ ഒരു കാര്യമായിട്ടാണ് ഒരു സംഭവമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്